പണ്ടു കാലങ്ങളിൽ എന്താണെന്നു വച്ചാൽ രാവിലെ എണീറ്റു ക്ലാസ്സിൽ പോകുന്നു വൈകിട്ടു വന്നിട്ട് ചായ കുടിച്ചിട്ട് നേരെ പാടത്തിറങ്ങുന്നു പാടത്തിറങ്ങിയിട്ട് ക്രിക്കറ്റ് കളി ഫുട്ബോളുകളി മാങ്ങയ്ക്ക് കല്ലെറിയുന്നു കളിയൊക്കെക്കഴിഞ്ഞ് കുളത്തിൽപ്പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള കുളി പിന്നെ എല്ലാവരും ചുറ്റും ഇരുന്നിട്ടുള്ള സംസാരം ആരും ആരെയും കുറ്റപ്പെടുത്തില്ല നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാരും ഷെയർ ചെയ്യും ചിരിയും കളിയും അതൊക്കെ ആ ഒരു കാലത്തെ സ്മരണകൾ തന്നെയാണ് പിന്നെ ആ കാലം ഈ കാലം ഈ കാലം വന്നപ്പോൾ ഈ കാലത്തെല്ലാവർക്കും ഫോൺ ടി വി ആർക്കും പരസ്പരം സംസാരിക്കാനുള്ള സമയമില്ല അങ്ങനെയൊക്കെ പോയി ഈ നാട് എന്തോ ആയി അതുകൊണ്ട് പണ്ടത്തെ പണ്ടത്തെയൊരു കാലം ഇനി തിരിച്ചു വരാനില്ല ഫോണ് ഇക്കാലം ഫോണും ടി വിയും കമ്പ്യൂട്ടറുമൊക്കെ കമ്പ്യൂട്ടറുകൾക്കൊക്കെ അടിമയായി മക്കൾ അതുകൊണ്ട് പണ്ടത്തെപ്പോലെ ആർക്കും ഓപ്പണായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങാനും അല്ലെങ്കിൽ പാടത്തുപോയി കളിക്കാനോ കുളിക്കാനോ ഒന്നിനും സമയമില്ല അവർക്കവരുടെ ഫോണായി ഗെയിംസായി അതിലിരിക്കും വൈകീട്ട് വരെ വൈകിട്ട് ക്ലാസ്സ് കഴിഞ്ഞു വന്നാൽ വീട്ടിൽ ചായ കുടിച്ചാൽ പിന്നെ നേരെ ഫോണിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ടീ വീടെ മുമ്പിൽ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗെയിംസ് എന്താണെന്നറിയില്ല ക്രിക്കറ്റെന്താണെന്നറില്ല ഫുട്ബോൾ എന്താണെന്നറില്ല അറിയില്ലെന്നല്ല ചുരുക്കമാണ് കളിക്കുന്നവർ കുറേപേരും ഈ ഫോൺ അഡിക്ടാണ് അതുകൊണ്ടുതന്നെ പണ്ടത്തെ ബാല്യകാലം എന്ന് ബാല്യകാലം മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി അങ്ങനത്തെയൊരു ഒരു കാലം കിട്ടില്ല